നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കായിട്ട് നമ്മുടെ കേരളാ സർക്കാർ പല രീതിയിലുള്ള ആരോഗ്യ സുരക്ഷാ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള സുരക്ഷാ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതു വളരെ നല്ല രീതിയിൽ കൊണ്ട് പോകാനും ശ്രമിക്കുന്നുമുണ്ട് പാവപ്പെട്ടവരായാൽ പോലും അവർക്ക് വേണ്ടുന്ന മരുന്നുകൾ നല്ല രീതിയിൽ സൗജന്യമായി കൊടുക്കുകയും അതല്ലയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കിഴിവിൽ കൊടുക്കുകയും ചെയ്യുന്നു അവിടുത്തെ ഡോക്ടർമാരായാലും ചിത്സിക്കാൻ വരുന്ന മറ്റ് ആൾക്കാരായാലും നേഴ്സുമാരായാലും നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങളായിട്ടാണ് വരിക എല്ലാവരോടും നല്ല രീതിയിലാണ് പെരുമാറുക ഒരു പ്രശ്നങ്ങളുമില്ലാണ്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാനും നോക്കുന്നുമുണ്ട് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള ആരോഗ്യകേന്ദ്രങ്ങളാണ് സ്ഥിതീകരിച്ചിരിക്കുന്നത് സ്ഥലത്തും ഉണ്ടാകാൻ സാദ്ധ്യതയുള്ള ജനങ്ങൾക്കനുസരിച്ചും അതിനനുസരിച്ചിട്ടുമുള്ള കെട്ടിടങ്ങളാണ് വന്നിരിക്കുന്നത് ഉദാഹരണത്തിന് തിരുവനന്തപുരം പോയ പോലെയുള്ള വലിയൊരു സ്ഥാ ഒരു ഡിസ്ട്രിക്റ്റിൽ ചെറിയ ക്ലിനിക്കുകൾ വെച്ചിട്ട് കാര്യമില്ലാത്തതിനാൽ വളരെ വലിയ ആശുപത്രികൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട് അതേപോലെ പത്തനംതിട്ട പോലെയുള്ള സ്ഥലങ്ങളിൽ വലിയ വലിയ ഹോസ്പിറ്റലിനേക്കാൾ കൊച്ചു കൊച്ചു ക്ലിനിക്കുകളാണ് എല്ലാവർക്കും സൗകര്യം എന്നുള്ള രീതിയിൽ അവർ അതും സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ നടത്തിപ്പും വളരെ നല്ല രീതിയിലാണ് കൊണ്ടു പോകുന്നത് ഇതൊക്കെ ചെയ്യുന്നതു കൊണ്ടു തന്നെ നമ്മുടെ കേരളത്തിൽ വളരെ നല്ല രീതിയിൽ ആ രോഗപ്രശ്നങ്ങൾ ആരോഗ്യപ്രശ്നങ്ങൾ കുറയുന്നുമുണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ ഇതെല്ലാം നടത്തുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ പോലെയുള്ള മറ്റ് സ്ഥലങ്ങളിൽ വളരെ നല്ല രീതിയിൽ രോഗീ പരിശീലനങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ വളരെ നല്ല രീതിയിൽ രോഗങ്ങൾ കുറയാനുള്ള സാദ്ധ്യതകളുണ്ട്